ഞാൻ കുറച്ച് കിഡ്സ് വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ മെറ്റീരിയലായിക്കോട്ടെ സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൽ ബക്കിൾ അല്ലെങ്കിൽ ബട്ടൻസ് അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേലെ കുത്തി തറയ്ക്കുമെന്നോ അവരുടെ ശരീരത്തിൽ പോറൽ ഏൽക്കുമെന്നോ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചു വിലയേ എടുത്തിരുന്നുള്ളൂ അത് എനിക്ക് എന്താണ് പറയുക ഫെസ്റ്റിവൽ ഓഫറിൽ കിട്ടിയതാണ് നല്ല പ്രൊഡക്റ്റാണ് നല്ല കമ്പനിയുടെയാണ് നന്തിലത്തിൻ്റെ ആണത് നല്ല മെറ്റീരിയലാണ് പിന്നെ അത് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യണതാണ് എത്ര വേണങ്കിലും ഹാൻഡ് വാഷും ചെയ്യാം അതുപോലെ മെഷീൻ വാഷും ചെയ്യാം അത്രയും നല്ല മെറ്റീരിയലായതുകൊണ്ട് അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഞാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും എനിക്ക് അത്രയേറെ അത് ഇഷ്ടമായി